ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യം ഞാൻ ഒരു പക്ഷി നിരീക്ഷണത്തെ കുറിച്ചുള്ള ആ ഒരു മേഖലയിലോട്ട് ഞാൻ എൻ്റെ ശ്രദ്ധ പതിഞ്ഞത് വളരെ നല്ലൊരു അനുഭവമാണ് അല്ലെങ്കിൽ നല്ലൊരു അനുഭൂതിയാണ് നമുക്ക് ആ സമയത്ത് ഉണ്ടാകുന്നത് പക്ഷി നിരീക്ഷണ പക്ഷി നിരീക്ഷണത്തിനായി ഞങ്ങൾക്ക് ക്ലാസ്സിലെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിവിധതരം പക്ഷികളെ നിരീക്ഷിക്കുക എന്നുള്ളത് അത് വളരെ രസകരമായ കാഴ്ചകളാണ് കാരണം ഓരോ പക്ഷികളെ അവരുടെ അവരുടെ ശബ്ദത്തിലൂടെ തിരിച്ചറിയുക ഒരോ പക്ഷികളുടെ ചലനങ്ങൾ വച്ച് ആ പക്ഷിയെ തിരിച്ചറിയുക അതുപോലെ തന്നെ ഓരോ പക്ഷികളും കാണാൻ പല രൂപത്തിലുള്ള പക്ഷികളായിരിക്കും അങ്ങനെ ഓരോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പലതരം പക്ഷികളെക്കുറിച്ച് അറിയുക അവയുടെ വളർച്ച അല്ലെങ്കിൽ അവയുടെ പേര് അവയുടെ അവയുടെ അവയുടെ തീറ്റ അങ്ങനെ അവയെ കുറിച്ചുള്ള പുതിയ പുതിയ കൂടുതൽ കാര്യങ്ങൾ ഇതിലൂടെ പഠിക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഇതുപോലെ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലേക്ക് പോയ സമയത്ത് അവിടെ ഇതുപോലെ രാവിലെ നേരത്തെ പക്ഷികളുടെ ഒക്കെ ശബ്ദം കള കള നാദം പക്ഷികളുടെ ഒക്കെ ആ ഒരു അ അ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു പലതരം പക്ഷി പലരീതിയിലാണ് ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നത് ഓരോരുത്തരും ഓരോ മരച്ചില്ലയിലിരുന്ന് ശബ്ദമുണ്ടാക്കുന്നത് ഒരു പക്ഷി നിരീക്ഷകനായ പക്ഷി നിരീക്ഷകനാണെങ്കിൽ അത്യാവശ്യം ആ ശബ്ദം വെച്ചിട്ട് ആ പക്ഷി ഏതൊക്കെ എന്ന് പറയാൻ സാധിക്കും